ഹലോ ടോപ് ഫോം റെസ്റ്റോറന്റ് അല്ലേ ഞാൻ മാവൂറിൽനിന്നായിരുന്നു വിളിക്കുന്നത് ആ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് പറയുവോ രണ്ടും വേണമായിരുന്നു

ആ കറിയായിട്ട്

ആ ഓക്കെ ആ ഓക്കെ

ആ അപ്പം ബൾക്ക് ആയിട്ട് ഓർഡർ ചെയ്താൽ ഡെലിവറി ഉണ്ടാവില്ലേ ഒരു പതിനഞ്ച് പേർക്കുള്ളതായിരുന്നു

ആ ഇത്ര കിലോമീറ്റർ പരിധിയുണ്ടോ ആ അതെയതെ ആ ഓക്കെ ആ ആ അപ്പം ഡെസേർട്ട് ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത്

ആ ഗീ ഗീ ഗീ റൈസ് ഉണ്ടാവില്ലേ സപ്രേറ്റ്

അപ്പം അൽഫാം ഒക്കെ ഡാ മോർണിംഗ് ഉണ്ടാവുമോ

ആ ആ പതിനഞ്ച് പേർക്ക് ഉള്ളത് ആ മാവൂർ ആ ഓക്കെ ആ അപ്പം ഡ്രിങ്ക്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഫ്രഷ് ജ്യൂസ് ആ അല്ല അല്ല അല്ല ആ ഫ്രഷ് ആ

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു അഞ്ച് മിനുട്ട് കൊണ്ട് ഓർഡർ ചെയ്താൽ മതിയോ ഞാൻ ഒന്ന് കൺഫോം ചെയ്തിട്ട് വിളിക്കാം ആ ഇ ഈ കറക്റ്റ് സ്ഥലം എവിടെ ആയിരുന്നു വരുന്നത് ഹോട്ടൽ ഹോട്ടൽ എവിടെ ആയിരുന്നു വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വന്ന് എടുക്കാൻ ആണെങ്കിൽ ആ അല്ല ചിലപ്പോൾ ടൗണിലേക്ക് വരുന്നുണ്ടാവും ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എന്നാൽ ഞാൻ കോ കോൺടാക്ട് ചെയ്യാം കേട്ടോ